നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഗതാഗത സംവിധാനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് പല ആൾക്കാർക്കും പല രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മിക്കവർക്കും തന്നെ വാഹനങ്ങളുണ്ട് അതിപ്പോൾ കാറാവാം ഇല്ലെങ്കിൽ ബൈക്കാവാം ജോലിക്ക് പോകേണ്ടവരൊക്കെ കാറും ബൈക്കുവായിട്ടുള്ള ഗതാഗത സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് അല്ലെങ്കിൽ ഒരു ചരക്ക് അല്ലെങ്കിൽ ഒരു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് സാധനങ്ങളെത്തിക്കാൻ അതിന് നമ്മള് ലോറികളും ഹെവി ലോഡ് വെഹിക്കിൾസുമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറ് അല്ലേ ഉപയോഗപ്പെടുത്താറ് അതിലുപരി നമ്മള് ദൂരയാത്രകള്ക്കൊക്കെ ട്രെയിനും പ്ലെയിനുമാണ് ഏറ്റവും കൂടുതൽ നമ്മള് അവയെ ആണ് ആശ്രയിക്കുന്നത് കാരണം നമ്മൾക്ക് കാറോ ബസ്സോ എടുത്ത് എത്തുന്നതിനേക്കാൾ ഇരട്ടി നേരം ലാഭത്തിൽ അല്ലെങ്കിൽ ഇരട്ടി എളുപ്പത്തിൽ നമുക്ക് ട്രെയിനോ പ്ലെയിനോ ഉപയോഗിച്ച് നമുക്കൊരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും ഇപ്പോളൊരു ബിസിനസ്സുകാരനാണെ അയാളുടെ സമയമാണ് അയാൾക്കേറ്റവും മൂല്യമുള്ള കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂല്യമുള്ള സമയം കളയാതിരിക്കാൻ അദ്ദേഹം ചിലപ്പോൾ അയാളുടെ തന്നെ പ്ലെയിനിലായിരിക്കും പോകുന്നത്

നമ്മുടെ നാട്ടിലുപയോഗപ്പെടുത്തുന്ന വേറൊരു സംവിധാനമാണ് ട്രെയിനുകൾ ട്രെയിനുകളെന്ന് പറയുമ്പോൾ ദൂരയാത്രകൾക്കും അതുപോലെതന്നെ കുടുംബത്തോടോപ്പം ഉള്ളൊരു യാത്രകൾക്കുവാണ് ട്രെയിൻ നമ്മളുപയോഗിക്കുന്നത് അതിലുപരി

കാറുകളും ആണ് നമ്മുടെ കാല് കാറുകളും ലോറികളുമാണ് നമ്മുടെ ഗതാഗതത്തിലൂടെ അങ്ങോട്ടു ഇങ്ങോട്ടും കിടന്ന് പായുന്നത് അതിൻ അതൊക്കെ ഉണ്ടാക്കുന്ന മലിനീകരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഒന്ന് ആദ്യത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയെന്ന് പറയുന്ന ലോകരാജ്യങ്ങളിൽ വച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മലിനമാക്കപ്പെട്ടോണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് കാരണം ഡെല്ലി പോലുള്ള മഹാനഗരങ്ങളിൽ ഈ ഗതാഗത ഉപയോഗം കാരണം വളരെ അധികം നമ്മുടെ നാട് മലിനീകരിക്കപ്പെടുന്നു നമ്മുടെ നാട്ടിൽ ഈവികൾടെ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂടുന്നുണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഗതാഗത സംവിധാനങ്ങളുടെ പോരായ്മ കാരണം നമ്മുടെ നാട് മലിനമാക്കപ്പെടുന്ന വളരെ കൂടുതലാണ് അവിടെ നേരിടുന്ന വെല്ലുവിളികൾ ഇതൊക്കെയാണ് അതിലുപരി നമ്മുടെ റോഡ് സംവിധാനങ്ങളും സേഫ്റ്റി ആയിട്ടുള്ള അല്ലെങ്കി സുരക്ഷിതത്വം കുറവുള്ള റോഡുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അത് മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റ് കൂടുതല് അല്ലെങ്കിൽ കൂടുതല് സേഫ്റ്റി മെഷർസ് അല്ലെങ്കിൽ ഒരു ആരോഗ്യപരമായ കാര്യങ്ങൾ എന്താ എടുക്കേണ്ട കാര്യങ്ങൾ ഇനിയും ഉണ്ട്